സ്മാര്ട്ട് ഫോണില് ജീവിതം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാല് ഒരു വിരല് തുമ്പില് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുടെ ആന്സറുകളും അറിയാന് പറ്റുന്നതാണ് സ്മാര്ട്ട് ഫോണിന്റെ പ്രത്യേകത അതായത് ഒരു ഗുളികേടെ കാര്യമാണെങ്കിലും അത് എന്തിനുള്ളതാണ് അത് എവിടെ കിട്ടും എന്ത് കാര്യത്തിന് ആണെങ്കിലും സ്മാര്ട്ട് ഫോൺ യു ട്യുബ് ഫേസ് ബുക്ക് അല്ലെങ്കിൽ ഗൂഗിള് ഇതിലൊക്കെ സെര്ച്ച് ചെയ്താൽ നമുക്ക് ഒരു ആഹാരം പാകം ചെയ്യുന്നത് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പേര് അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫോണ് നമ്പര് ഇവയെല്ലാം നമുക്ക് കണ്ട് പിടിക്കാന് ഒരു സ്മാര്ട്ട് ഫോണ് ഉള്ള നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാട്ട് ആ പാട്ടിന്റെ ലിറിക്സ് നമുക്ക് വേണമെങ്കിൽ അതടിച്ചു കൊടുത്താൽ അത് കിട്ടും അല്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് അത് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കണമെങ്കില് പണ്ട് കാലത്ത് ഒക്കെ റേഡിയോ അത് പോലെ ഉള്ള കാര്യങ്ങളൊക്കെ വേണമായിരുന്നു പക്ഷേ എന്നാല് ഇന്നത്തെ കാലത്ത് ഒരു വിരല് തുമ്പിനപ്പുറം വിരല് തുമ്പിനപ്പുരം നമ്മുക്ക് അത് കിട്ടുന്നതാണ് അതായത് ആ പേര് അടിച്ച് കൊടുത്താല് ഗൂഗിളിലോ അല്ലേല് യു ട്ടൂബിലോ ഫേസ് ബുക്കിലൊക്കെ ആ പേരടിച്ചു കൊടുത്താല് തന്നെ അപ്പം തന്നെ നമുക്ക് ആ പാട്ട് കേൾക്കാം അത്രയേറെ ടെക്നോളജികൾ വികസിച്ചിരിക്കുന്നു അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുത്തുന്നതും ആണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ എവിടെയാണെന്ന് കണ്ട് പിടിക്കാന് ഉള്ള ഒരു വഴി കണ്ട് പിടിക്കാന് എല്ലാം തന്നെ ജി പി ആര് എസ് ഓ അത് ഗൂഗിളിൽ ഓപ്പണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് വഴി വേണമെങ്കിലും ഒരു അറിയപ്പെടാത്ത ഒരു വഴിയാണ് അത് ട്രാക്ക് ചെയ്ത് പോകാനും ഒക്കെ ഉള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതുവഴി നമുക്ക് സാധിക്കുന്നു ഒരുപാട് ഉപകാരപെട്ടതാണ് ഈ സ്മാര്ട്ട് ഫോണ ഇപ്പം ഈ ജീവിതത്തിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഒഴുവാക്കാന് പറ്റാത്ത ഒരു കാര്യമാണ് സ്മാര്ട്ട്ണ് ഫോൺ